ഓൺലൈൻ സ്കൂൾ വിദ്യാഭ്യാസം പരിശീലനവും കുട്ടികളുടെ ജീവിതത്തിൽ രണ്ട് രീതിയിലും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടാണ് എൻ്റെ ഒരഭിപ്രായത്തില് കൂടുതലും ബാധിച്ചിട്ടുണ്ടാവുക എന്താ പറയുക കാരണം ഫോണാണെങ്കിൽ കിട്ടിയതോട് കൂടി കുട്ടികളൊക്കെ പൊതുവെ അതിൽ ഒതുങ്ങി കൂടി പുറം ലോകമായിട്ടുള്ളൊരു ഇത് കുറഞ്ഞു പോയി ഫോണിലേക്കങ്ങോട്ട് ഒതുങ്ങി കൂടി ഇപ്പം ഒരു പഠനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് നല്ല ബെറ്ററ് ഒരൊ ഒരൊ ഓപ്ഷനാണ് കാരണം ഇപ്പൊരു ദിവസം എന്തെങ്കിലും പറ്റിയത് കൊണ്ട് പോ സ്കൂളില് പോകാതിരിക്കുവാണെങ്കില് അതൊക്കെ റിവിഷനെടുത്ത് നമുക്ക് പിന്നീട് കാണാനും കേൾക്കാനുമൊക്കെ പറ്റും ഫുൾ വീഡിയോസും ഇതിൻ്റെ ഓഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലൊ നമുക്ക് പിന്നടുത്ത് മിസ്സായ ക്ലാസ്സുകളൊക്കെ പിന്നെ എടുത്ത് കാണാൻ കഴിയും അതുമാതിരി നമുക്ക് ഇപ്പോൾ പഠിച്ചത് വീണ്ടും ഡൌട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റടിച്ച് റിപ്പീറ്റടിച്ച് കണ്ട് ഒക്കെ പഠിക്കാം ഒരു പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചാണെങ്കില് ഇത് നല്ല ഉപകരത്തിൽ ഉള്ളൊരു സംഭവം തന്നെയാണ് ആ കാര്യത്തില് വിഷയങ്ങളൊക്കെ നമ്മൾക്ക് ഫോണുകളിലൊക്കെ തന്നെ സർച്ച് ചെയ്തിട്ടും ആഴത്തിലിറങ്ങി പഠിക്കാനും എല്ലാം ഉപകാരമാണ് ഫോൺ ഈ ഓൺലൈൻ സ്കൂള് ആകുമ്പോൾ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ഹെഡ് സെറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് പോസിറ്റീവാണ് വളരെ പോസിറ്റീവാണ് പിന്നെ കുറച്ചും കൂടിയും അറിവുണ്ട് ഈ ഓൺ ലൈൻ യുഗമായത് കൊണ്ട് കൂടി ഇവർക്കൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടി പഠിക്കാനും ആ അറിവുകൾ വർദ്ധിപ്പിക്കാനുമൊക്കെ സുഖമാണ് അതേപോലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഓരോത്തർക്കും ഓരോരുത്തരുടെതായ രീതിയിൽ സംഭവങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ നമ്മൾക്കൊരു പഠനത്തിനായി ബന്ധപ്പെട്ട് തന്നെ പണ്ട് ബുക്കുകളും ഇതൊക്കെ തപ്പേണ്ടിയ കാലത്ത് ഇതിപ്പം എന്ത് സംഭവങ്ങളാണെങ്കിലും ഒറ്റയടിക്ക് സർച്ച് ചെയ്താൽ ആ കറക്റ്റ് നമുക്ക് വേണ്ട വിഷയം കിട്ടും അങ്ങനെ സമയങ്ങളൊക്കെ ലാഭമാണ് പിന്നെ നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുവിധം ആൾക്കാരൊക്കെ മടിയന്മാരാക്കി മാറ്റി കുട്ടികളെ നമ്മളുടെ കുട്ടികളെ മുഴുവൻ മടിയാന്മാരാക്കി മാറ്റി പണ്ട് ഒരു വെക്കേഷനക്കെ കിട്ടി കഴിഞ്ഞാൽ പുറത്ത് പോയി കളിക്കലും ഫിസിക്കല് എല്ലാവരും നല്ല സ്ട്രെങ്ത്തുള്ള ആൾക്കാരായിരുന്നു ഇപ്പത്തെ ആൾക്കാർക്ക് ഫിസിക്കലി പൊതുവെ പഴയ ആൾക്കാരെ സംബന്ധിച്ച് ഫിസിക്കലി വളരെ കുറവാണ് ഒരു ഫിസിക്കൽ കാര്യങ്ങൾക്ക് അവർക്ക് ഒരു ബലഹീനത ആണെല്ലാവർക്കും കാര്യങ്ങൾ ചെയ്യാനും ഇതിനൊന്നും കഴിയില്ല പൊതുവേ ഫോണിലിരുന്നിട്ട് മടിയന്മാരാക്കി കാരണം പുറത്തുള്ള അതും ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല അതേ മാതിരി ഫോണിൻ്റെ ഉപയോഗം പഠിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ട് ഫോണിലാണ് എല്ലാവരും അതിൽ പല വൃത്തികേടുകളായാലും നല്ലതായാലും കൂടുതല് വൃത്തികേടിലേക്കൊക്കെ പോകുന്നത് ഇങ്ങനെയാണ് അതേപോലെ എൻറ്റെർട്ടെയ്മെൻറ്റുകളായി കൂടുതൽ കുട്ടികള് എൻറ്റെർട്ടെയ്മെൻറ്റിലേക്ക് മാറി കഴിഞ്ഞു ഒരു കാര്യബോധത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഫുള്ള് എൻ എൻജോയ് ചെയ്യാണെന്നുള്ളൊരു മൈൻഡായി മാറി ചില ഇതിലും നല്ലതാണ് പക്ഷേ ചില സാഹചര്യങ്ങളത് ഇത് ദോഷകരവുമാണ് മാഫിയകളായിട്ടും അങ്ങനെ ഒരുപാട് ലഹരിമരുന്നുകളായിറ്റുമൊക്കെ ബന്ധമുണ്ടാക്കിയത് അതൊക്കെ ഈ ഓൺലൈൻ പഠനം പറഞ്ഞത് കൊണ്ട് അങ്ങനെ ഒരു ജീവിത സാഹചര്യം മാറിയതാണ്